ആ ഹലോ എന്തായിരുന്നു സാറേ കേൾക്കുന്നില്ലേ ആ ഓക്കേ ഓക്കേ സാറേ ഞങ്ങൾ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് ആണ് എടുക്കുന്നത് അപ്പം എത്ര ദിവസത്തേക്ക് ഓഡിറ്റോറിയം ഒക്കേ വേണം സാറേ ഓക്കേ ഓക്കേ അപ്പം ഫുഡ്ഡും കാര്യങ്ങളും എങ്ങനെയാണ് സാറ് ഉദ്ദേശിക്കുന്നത് എത്ര പേര് ഉണ്ടാവും ഓക്കേ അപ്പം നമുക്ക് പിന്നെ എല്ലാ എത്ര ഏതൊക്കേ ഐറ്റംസ് ആണ് വെജിറ്റേറിയൻ സദ്യ ആയിട്ടാണോ വേണ്ടത് ബിരിയാണി നെയ്ച്ചോറ് ബുഫേ സിസ്റ്റം ആണോ ഉദ്ദേശിക്കിന്നത് അല്ലാതെ നാടൻ സദ്യ പോലെ ആണോ ആണോ ബിരിയാണിയും സദ്യയും മതിയല്ലേ ഓക്കേ ഓക്കേ സാറേ അപ്പം നമുക്ക് പിന്നെ ആ ഫുഡിൻ്റെ കാര്യം ഓക്കേ ആണ് ആ അതുപോലെത്തന്നെ നമ്മൾ പിന്നെ ക്യാമറയും ആ പിന്നെ വീഡിയോ സെറ്റുമുണ്ട് നമ്മൾ അത് മൂന്ന് ദിവസത്തേക്കാണോ രണ്ട് ദിവസത്തേക്കാണോ ക്യാമറ വീഡിയോ ഒക്കേ അറേഞ്ച് ചെയ്യേണ്ടത് ഓക്കേ ഓക്കേ രണ്ട് ദിവസത്തേക്ക് മതി ഓക്കേ ഓക്കേ അപ്പോൾ സാറേ അപ്പം നമ്മൾ ഈ ഔട്ട്ഡോർ ഒക്കേ എന്താണ് ഉദ്ദേശിക്കുന്നത് ഔട്ട്ഡോറ് ചെയ്യണോ അതോ പിന്നെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ സെറ്റ് ഒക്കേ ആ സമയത്തുള്ളത് മാത്രം മതിയോ അതോ ഔട്ട്ഡോറ് പോയിട്ട് നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ എടുക്കണോ ഓക്കേ സാർ ഓക്കേ ഓക്കേ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലത്തന്നേ നമുക്ക് പിന്നെ ഈ അതായത് ഡെക്കറേഷൻ എങ്ങനെ ആണ് കുറെ പൂക്കൾ വെച്ച് എങ്ങനെ എന്തെങ്കിലും പ്ലാനുണ്ടോ സാറിന് സാറിൻറ്റേതായ ഭാഗത്ത് നിന്നിട്ട് അപ്പോൾ ഒരു സാധാരണ രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാം ആ ഓക്കേ സാറേ അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യാം അപ്പം ഒരു ഏകദേശം അങ്ങനെ ഫ്ലവർ വെക്കുമ്പം മണ്ഡപത്തിൽ എന്തേം ഫ്ലവർ വെക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഏതെങ്കിലും കളർ ചൂസ് ചെയ്ത് പറയാൻ ആഗ്രഹം ഉണ്ടോ വൈറ്റോ യെല്ലൊയോ അല്ലെങ്കിൽ റെഡ് ഷെയിഡോ അങ്ങനെ എന്തെങ്കിലും നിങ്ങടേതായ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഓക്കേ ഓക്കേ നമുക്ക് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം പിന്നെ കാറ് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് വരുമ്പം പിന്നെ ചെക്കനും പെണ്ണിനും ഉള്ള വണ്ടികൾ ഒക്കേ അറേഞ്ച് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ ഒക്കേ ഞങ്ങൾ ഇവിടെ സെറ്റ് ആക്കീട്ടുണ്ടാവും സാറ് ഒരു പിന്നെ ഒരു മൂന്ന് ദിവസം മുൻപ് എന്നേ ഒന്ന് ഞങ്ങളേ കോൺടാക്ട് ചെയ്താൽ മതി സാറിന് ഒന്ന് വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ ഒക്കെയാന്ന് ഒന്ന് വന്ന് ചെക്ക് ചെയ്യാമായിരിക്കും ഓക്കേ സാർ ഓക്കേ സാർ ആ ഓക്കേ സാർ ഒന്ന് വിളിച്ചാൽ മതി വരുന്ന ദിവസം എന്നാൽ ശരി സാർ